ഞാൻ ഞാൻ കരുതുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നൃത്തം ഒരു ഹോബിയായിട്ട് കൊണ്ടുപോവുന്നതിൽ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിലൊന്ന് ഫാമിലിയിൽ നിന്ന് തന്നെയായിരിക്കും കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനെതിർപ്പ് ഉണ്ടാകും

എന്താ പറയുക ഇത് മുന്നോട്ടു കൊണ്ടുപോകുന്ന ഒരു പ്രൊഫഷനായി കൊണ്ടു പോവുകയെന്ന് പറയുമ്പോൾ അത് പല തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് ഉണ്ടാവില്ല പിന്നതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോൾ നൃത്തം മുന്നോട്ടു കൊണ്ടുപോവാൻ എന്തായാലും പറ്റില്ല കാരണം അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇതിനൊരുപാട് ചിലവുണ്ട് അപ്പോൾ ഒരു നൃത്ത പരിപാടികൾക്ക് വളരെയധികം ചിലവാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അതവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് അത് ഒരു കാരണം തന്നെയാണ് അതുപോലെതന്നെ ഒരു പരിപാടിക്ക് പോവുക അത് രാത്രി സമയങ്ങളിലുള്ള പരിപാടികളായിരിക്കും കൂടുതലും നൃത്ത പരിപാടികൾ അത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ദൂരസ്ഥലങ്ങളിൽ പരിപാടി ഉണ്ടാവുമ്പോൾ അതിനു പോയി വരാനും ഒരുപാട് സമയം അവിടെ നിൽക്കുവാനെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും പലതരത്തിലുള്ള വെല്ലുവിളികൾ സ്ത്രീകൾ നൃത്തത്തിൽ നേരിടുന്നുണ്ട് സമൂഹത്തിൽ നിന്നും അതുപോലുള്ള വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്